ഇപ്പം എനിക്ക് പറയാനാണെങ്കില് ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപെട്ട ഒരു കലാകാരന് എന്ന് പറയുമ്പോള് കലാഭവന് മണിയെന്നു പറയുന്ന ഒരു കലാകാരനെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ പാട്ടുപാടുന്നതായാലും എന്താ പറയ അഭിനയിക്കുന്നതായാലും പുള്ളി നല്ലൊരു കലാകാരനായിട്ടാണ് ഞാന് കണ്ടിരുന്നത്

പിന്നെ നാടന് പാട്ട് മാത്രമല്ലായിരുന്നു പുള്ളി എന്താ പറയുക അഭിനയിക്കാനായിരുന്നു നല്ലൊരു വ്യക്തി ആയിരുന്നു കുറച്ച് നാളുകൾക്ക് മുന്പ് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി എന്താ പറയാ മലയാളികള്ക്ക് ഒക്കെ മനസ്സില് നിന്നു വീട്ടുപോവാതെ വിഷമം ആയിട്ട് എല്ലാവരും തന്നെ അത് കാണുന്നത് പിന്നെ എന്താ പറയാ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്നു പറയുകയാണെങ്കില്